ഒന്ന് ഒന്ന് രണ്ടായിരത്തിയൊന്ന് രണ്ട് രണ്ട് രണ്ടായിരത്തി രണ്ട് അഞ്ച് രണ്ട് രണ്ടായിരത്തിയാറ് ഏഴ് രണ്ട് രണ്ടായിരത്തി പത്ത് എട്ട് രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഒൻപത് രണ്ട് രണ്ടായിരത്തി പതിനഞ്ച്